ഒരുപാട് ഗെയിമുകള് കളിച്ചിട്ടുണ്ട് പബ്ജി ഫ്രീ ഫയറ് കാൻഡി ക്രഷ് മിനി മിൽട്ടിയ ടെമ്പിൾ റണ്ണ് സബ്വേ സറഫ് അങ്ങനെ കുറെ ഗെയിമുകള് കളിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമ് പബ്ജിയായിരുന്നു അതൊരു നൂറു പേരിലൊരു ടീമാണ് ഈ നൂറു പേരും ഒരേ സമയം ഒരാൾക്ക് ഒരാളുകളിങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും അതില് ഒരു നാല് പേര് നമ്മൾ ടീമായിരിക്കും ബാക്കി തൊണ്ണൂറ്റി ആറു പേരും നമ്മുടെ എതിരാളികളാണ് ഒര് തൊണ്ണൂറ്റി ആറ് പേരേയും നമ്മള് കൊല്ലണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള് ഗണ്ണും ഉണ്ടയും ബോംബുമൊക്കെ നമുക്കുപയോഗിക്കാം ആപ്പ് ഇതൊക്കെ നമ്മള് ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ടു പിടിച്ചെടുക്കണം കണ്ടുപിടിച്ചെടുത്തിട്ട് വേണം നമ്മളിങ്ങനെ അവരെ കൊല്ലാൻ ഇപ്പോൾ നമ്മള് ഒരാളെ കൊല്ലു ആണെങ്കിൽ അയാളുടെ കൈയിലുള്ള തോക്കും ഉണ്ടയൊക്കെ നമുക്ക് എടുക്കാം അയാളുടെ കൈയിലുള്ള ബേഗൊക്കെ എടുത്തിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ നമുക്കെടുക്കാം പിന്നെ നമ്മുടെ ടീം മെയിറ്റിനൊക്കെ പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്യ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ നമുക്ക് ഒര് ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ച് രക്ഷിക്കാനൊക്കെ പറ്റും ഒരു ഫസ്റ്റ് എയിഡ് കൊടുത്തിട്ട് നമുക്കവരെ രക്ഷിക്കൊക്കെ ചെയ്യാം വെറുതെ കളിക്കാൻ നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നല്ലൊരു എച്ച് ഡി ക്വാളിറ്റി ഉണ്ട് നല്ലൊരു എഫക്ടിലുള്ള നല്ല നല്ല രീതിയിൽ കളിക്കാൻ പറ്റും ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാണ് അത് കളിക്കാൻ അതുപോലെ ഈ പബ്ജി പോലെ തന്നെയാണ് ഫ്രീ ഫയറു ഉള്ളത് പക്ഷേ ഫ്രീ ഫയറിന് ഗ്രാഫിക്സ് കുറച്ച് കുറവാണ് പബ്ജിയുടെ അത്ര ഗ്രാഫിക്സില്ല ബാക്കിയെല്ലാം സെയിമാണ് കളിക്കുന്നതൊക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമ് കാൻഡി ക്രഷായിരുന്നു ഇതില് ഒരുപാട് ലെവലുകളുണ്ട് നമ്മള് എങ്ങനെയെങ്കിലും ഈ ഒരു ലെവല് കളിച്ച് ഫിനിഷ് ചെയ്യണം എന്നിട്ട് അടുത്ത ലെവലെത്തണം വിചാരിക്കും പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഒരു ലെവല് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടും മൂന്നും ദിവസൊക്കെ എടുക്കും ഭയങ്കര കഷ്ടമാണ് പക്ഷേ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങ് ഉള്ളത് ഒരുപാട് പേര് ഈ ഗെയിമ് കളിക്കുന്നുണ്ട് എൻററിവിൽ തന്നെ എൻറെ കൂട്ടുകാരും ഫാമിലിയിലുള്ളോരൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ ഗെയിമ് കളിക്കുന്നുണ്ട് അവരെ കണ്ടിട്ടെന്നെ കളിക്കാൻ തുടങ്ങിയത് ഇത് രസത്തിൽ കളിച്ചോണ്ടിരിക്കയാണ് ഒരുപാട് ലെവലുള്ളത് കൊണ്ട് തീരേയില്ല എത്ര കളിച്ചാലും ഇതിൻറെ ലെവല് തീരില്ല അങ്ങനെയുള്ളൊരു ഗെയിമാണ് കാൻഡി ക്രഷ് ഭയങ്കര രസാണ് അത് കളിച്ചോണ്ടിരിക്കാൻ ഇത്രേയുള്ളൂ